സാങ്കേതികവിദ്യയും ഇന്ത്യൻ ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയും മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യയിലൂടെ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിദ്യകളും വ്യത്യാസങ്ങളും ഇൻ്റർനെറ്റിൻ്റെ വന്നിരിക്കുന്നതുകൊണ്ടുള്ള വ്യത്യസങ്ങൾ എന്നു പറഞ്ഞാൽ മലയാള ഭാഷയിൽ ഉണ്ടായിരിക്കുന്നതുമായ ഭയങ്കരമായ വ്യത്യാസങ്ങൾ വന്നു കാരണം മലയാളം കീബോഡ് ഇൻ്റർനെറ്റിന് ആണെന്നുണ്ടെങ്കിൽ മലയാളം കീബോഡ് അതുപോലെതന്നെ ഇൻ്റർനെറ്റ് ഉപയോഗം കൂടിവന്നതുകൊണ്ട് ലാങ്വേജ് സ്പെൻ്റ് ചെയ്യാൻ പെട്ടെന്ന് അതായത് ലാങ്വേജ്കളിലും ഡിറക്റ്റ് സെലക്റ്റ് ചെയ്തെടുക്കാം മലയാളം സാങ്കേതിക ഇൻ്റർനെറ്റ് വന്നതുകൊണ്ടാണ് ഇത് പൂർണ്ണമായിട്ടും കൂടുതലായിട്ടും എല്ലാവർക്കും കോമണായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഒരു പുതിയൊരു ലോകം വന്നില്ലായിരുന്നുവെങ്കിൽ പഴയതുപോലുള്ള എഴുത്തും ഇതല്ലായിരുന്നു ഇപ്പോൾ പറയുക വോയിസ്സ് വോയിസും കൊടുക്കുമ്പോൾ ടൈപ്പ് ചെയ്തു വരികയും അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലാണ് കൂടുതലായിട്ടുക്കും എന്നാണ് സാങ്കേതിക വിദ്യ വളർന്നതുകൊണ്ട് അതിൻ്റേതായ ലാങ്വേജിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് കാരണം ഒത്തിരി ഒത്തിരി മെച്ചമായ കാര്യങ്ങൾ നല്ലതായ കാര്യങ്ങളുമുണ്ട് നല്ലതായ നൂറു ശതമാനം കാര്യങ്ങളും ഇൻ്റർനെറ്റ് വളർന്നതുകൊണ്ടാണ് ഇത്രയും ലോകത്തിന് ഒരു വളർച്ച ഉണ്ടാകാനുള്ള കാരണങ്ങളും മറ്റുള്ള ലോകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതുപോലുള്ള ഒരു ഇൻ്റർനെറ്റും കാര്യങ്ങളും കയറിക്കയറി വരികയും കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നൂറു ശതമാനമായിട്ടും ഉറപ്പായിട്ടും സാധാരണക്കാരായ സാധാരണക്കാരായ ജനങ്ങൾക്കുപോലും സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളതായ സ്മാട്ട് ഫോണുകളും കാര്യങ്ങളുമെല്ലാം വന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും എല്ലാവിധ കാര്യങ്ങളും നല്ലതായിട്ട് നല്ലതായിട്ട് തന്നെയാണ് ഇതിനകത്ത് കണക്ക് കൂട്ടുകയാണെങ്കിൽ ചെയ്യുന്നത് എന്നു വന്നിരിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സാങ്കേതിക വളർച്ചയിൽ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും നല്ലതായ കാര്യങ്ങളാണ് അല്ലാതെ അതിനകത്തൊരു മോശമായ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നവരുണ്ട് പക്ഷേ ചിത്രീകരിച്ചാലും അതിനകത്ത് നല്ല വശങ്ങൾ നൂറു ശതമാനവും ഉറപ്പായിട്ടും എല്ലാം നല്ലതായ കാര്യങ്ങൾ മാത്രമേ ഉള്ളു അല്ലാതെകണ്ട് മോശമായ മോശമായ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്തൊന്നും പറയാനില്ല ചില എല്ലാവിധ ആവശ്യക്കാർക്ക് ഏത് ഏത് ഏത് ഏത് ലാങ്വേജ് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എഴുതുകയും കാര്യങ്ങളും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് കൂടുതലായിട്ടും